ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം ആരാധനാ ആരാധാലയങ്ങളുള്ള സ്ഥലമാണ് അത്പോലെത്തന്നെ പാരമ്പര്യമായ ഉത്സവങ്ങളും പാരമ്പര്യമായ സമൂഹവുമാണ് പാരമ്പര്യ ഈ വക കാര്യങ്ങൾക്ക് ചരിത്രമുണ്ട് ഉത്സവങ്ങളൊക്കെ നടത്തി സ്വന്തമായി ആഘോഷിക്കുന്നവരാണ് ഇതിന് മറ്റുള്ള ജില്ലകളെക്കാൾ വ്യത്യസ്തമായിട്ട് ഇവിടെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഈ ആരാധനാലയങ്ങളോടനുബന്ധിച്ച് തന്നെ വളരേയധികം ഉത്സവങ്ങള് നടക്കുന്നുണ്ട് അതിപ്പോൾ ചെനക്കത്തൂര് വർഷ പൂരമായാലും ശരി ഓണം അല്ലെങ്കിൽ തിരുവാതിര അതല്ലെങ്കിൽ വിഷു ഈ വക ഉത്സവങ്ങളാണെങ്കിലും ശരി കൊടുമ്പ് ഉത്സവവാണെങ്കിലും ശരി നെന്മാറ വേലെയാണെങ്കിലും ശരി വേല എന്ന് പറയുമ്പോൾ ഇവടെ എല്ലാ വേലകളുണ്ട് എല്ലാ ഗ്രാമ ഗ്രാമന്തരങ്ങളിലും വിഷു അനുബന്ധിച്ചിട്ടൊക്കെ ആ മാസങ്ങത്തില് എല്ലാ ദിവസവും വേലകളാണ് അപ്പൊൾ എല്ലാ ദിവസവും പരിപാടിയുണ്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂർണ്ണമായും ഈ പറഞ്ഞ ഉത്സവങ്ങളുടെ കാലാണ് ഒരു ക്ഷാമുല്ലാത്ത സാധാരണക്കാരനിൽ സാധാരണക്കാരനും വലിയവനും ഏ ജാതി മത ഭേദമന്യേ എല്ലാവരും അത് പള്ളിയില് അത്പോലെത്തന്നെ പരിപാടിയുണ്ട് പൊതുവെ ഇത് ന ഉത്സവങ്ങൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു നാടാണ് അത് നല്ലൊരു ഉത്സവ കാലഘട്ടത്തില് പൊതുവെ അത്ര ജാതീയമായ ചിന്തകളും കുറവാണ് അത്പോലെതന്നേ സമൂഹം അവരുടെ സ്വത്തോ അല്ലെങ്കിൽ ചരിത്രമൊക്കെയൊന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണായിട്ട് പൊറോട്ട നാടകം പൊറോട്ട കളി പൊറോട് അതൊക്കെ വലിയ ഈ പാലക്കാട് ജില്ലയിൽ ഒരു വലിയ നല്ല ഒരു പരിപാടിയായിട്ടാണ് ആഘോ ആൾക്കാര് കൊണ്ടുനടക്കുന്നതാണ് ഓരോ പരിപാടിയിലേക്കും ഓരോ പൂരത്തിനും വേലക്കും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പരിപാടികള് അവര് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഉത്സവത്തിന് ധാരാളം വേഷങ്ങള് വണ്ടി വേഷങ്ങള് പുരാണ കര കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള വേഷങ്ങള് ഇതൊക്കെയും ഈ പരിപാടിയില് വരുത്തുന്നുണ്ട് ഇതിനൊക്കെയും ഇതിൽ വളരെയാധികം സാധാരണക്കാരിൽ സാധാരണക്കാരൻറ്റെ സംഭാവനയുണ്ട് ഭാവനകളുണ്ട് അവൻറ്റെ ബുദ്ധിയുണ്ട് പ്രയത്നമുണ്ട് ഏ അവൻറ്റെ എല്ലാ വിധ ഇതും ഉണ്ട് അത്കൊണ്ട് തന്നെ ആരാധാലയങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല അത് പാലക്കാട് ജില്ലയില് ഇഷ്ട പ്രകാരമാണ് അത് സാംസ്ക്കാരിക പരമ്പര്യമുള്ളവരാണ് എല്ലാവരും നല്ല നല്ല പരിപാടികൾ നടത്താനും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അതിലൊക്കെ ആ ഈ രണ്ട് മൂന്ന് മാസക്കാലം എല്ലാ കൊല്ലവും നല്ല രീതിയില് നടക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല